ഞാൻ ഷോപ്പിങ്ങിനു പോയപ്പോൾ എനിക്കു കടെത്തൊരു കൂപ്പൺ കിട്ടി അപ്പം എനിക്ക് എവിടെ ഈ കൂപ്പൺ വെച്ചിട്ടൊരു ടി വി വാങ്ങണോയെന്നു വിചാരിച്ചിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് എന്താ എനിക്ക് ഇപ്പോൾ ഒരു ടി വി വേണം അപ്പം നിങ്ങളി കൂപ്പൺ വെച്ചിട്ട് എന്താണെന്നു പറഞ്ഞാൽ ഇതിനു ഏറ്റവും കുറച്ചു തരണം കുറച്ചു പൈസക്ക് തരണം എനിക്ക് ടി വി വീട്ടിൽ അങ്ങനത്തെ സാഹചര്യം ആണ് വേറെന്താ പറയുക എനിക്ക് ഒരു അത്രയേ ഒരു ഇരുപത്തി മൂന്നു ഇഞ്ചിൻ്റെയൊക്കെ ഒരു ടി വി വേണം എന്താ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പൈസക്ക് എനിക്ക് അത് തരണം ഈ കൂപ്പൺ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ നിന്നു പോയപ്പോൾ കിട്ടിയതാണ്